സാങ്കേതിക വിദ്യയുടെ ഇൻ്റർനെറ്റിൻ്റെയും വളർച്ചയ്ക്കൊപ്പം മലയാള ഭാഷയ്ക്ക് വന്നത് ക്ഷയമാണ് കാരണം എന്തെ വച്ചിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷ ഉപയോഗിക്കാണ്ടായി എന്നു വച്ചാൽ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറ് കമ്പ്യൂട്ടർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഇംഗ്ലീഷിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെതന്നെ ഇപ്പോൾ ഫോണ് നോക്കുകയാണെങ്കിൽ ഫോണ് നോക്കുകയാണെങ്കിൽ അതിനകത്തും ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പം മലയാള ഭാഷയ്ക്ക് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ മലയാള ഭാഷ ഉപയോഗിക്കലേ ഇല്ല സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം ഇപ്പോൾ ഇപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അവിടെ മലയാള ഭാഷ മലയാളം എന്നൊരു വാക്കുപോലും സംസാരിക്കാൻ പാടില്ല അവർക്ക് മലയാളമെന്ന വിഷയത്തിൽ മാത്രം മലയാളത്തിൽ സംസാരിക്കാൻ പാടുള്ളു ബാക്കിയെല്ലം ഇംഗ്ലീഷിൽത്തന്നെ സംസാരിക്കേണ്ടതാണ് അവർ സ്കൂളുകളിലായാലും അപ്പോൾ മലയാള ഭാഷയ്ക്കൊരു എന്ത് എന്നാണ് അത് ഉപയോഗിക്കുന്നില്ല എന്നുതന്നെ ഉള്ളത് വലിയൊരു മാറ്റം തന്നെയാണ്